വയനാട് ജില്ലയിൽന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പൊതുവേ ഗതാഗത സൗകര്യംന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്കിപ്പോൾ റോഡ് വഴിയുള്ള ഗതാഗതം മാത്രമേ ഇപ്പോൾ ഇവിടെ അവൈലബിളായിട്ടുള്ളു കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോൾ മറ്റേ അല്ലാണ്ടൊള്ളേ അതായത് ജലസേജനവകുപ്പിൻ്റെ ഗതാഗതൊന്നും ഇവിടെ നടക്കുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കായൽ കടൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മാത്രമേ നടക്കോളളു അതായത് ഈ കോഴിക്കോട് എറണാകുളം ആ ഭാഗത്ത് മാത്രമേ നടക്കോള്ളു കാരണെന്താച്ചു കഴിഞ്ഞാൽ ഇവിടേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളും മലയോര പ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട് ഹൈവേ അതായത് റോഡുകൾ മാത്രമേ ഉള്ളു ഇപ്പോൾ റോഡുകളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റോഡുകളൊക്കെ ഇപ്പോൾ പുതിതായിട്ട് വന്നിട്ടുണ്ട് കാരണംന്ന് വെച്ചുകഴിഞ്ഞാൽ നിലമ്പൂർ റോഡ് നമുക് നമുക്കിപ്പോൾ ഇവിടുന്ന് നിലമ്പൂരേക്ക് പോവാൻ വേണ്ടീട്ട് നല്ല അടിപൊളിയായിട്ടുള്ള റോഡാണുള്ളത് അതായത് ഒരു നാടുവാണി ചൊരംന്ന് പറഞ്ഞിട്ട് ഒരു ചൊരം എറങ്ങീട്ട് വേണം നിലമ്പൂരിലേക്ക് പോവാൻ മേണ്ടീട്ട് ആ നമ്മൾ ബത്തേരിന്നാണ് പോവണ്ടത് പിന്നേന്ന് പറഞ്ഞാൽ സംസ്ഥാന പാത അതായത് നാഷണൽ ഹൈവേയിണ്ട് പിന്നെ സംസ്ഥാന പാത സംസ്ഥാന പാതകൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ മലയോര ഹൈവേ നമ്മളെ എൻ്റെ വീടിൻ്റെ മിറ്റം താഴെക്കൂടെയാണ് മലയോര ഹൈവേ പോവുന്നത് അപ്പോൾ നല്ല രീതീലുള്ള യാത്രക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റോഡുകൾ